ആ അതെ അതെ അതെ വാങ്ങാനാ ചേച്ചി ആ ആ ഇവിടെ ഇവിടെ ഇപ്പോൾ പല സ്ഥലത്തും പല റേറ്റാണ് സിറ്റി ഏരിയയൊക്കെ ആണെങ്കിൽ നല്ല പൈസയാകും ഏകദേശം അഞ്ചാറ് ലക്ഷം രൂപയാകും ഒരു സെൻറ്റിന് തന്നെ ആ അപ്പം

ഒരു ലക്ഷം അല്ലേ നിങ്ങൾ എങ്ങനെയാ എങ്ങനെയാ നല്ല വില്ലേജെക്കെയാണോ ഉദ്ദേശിക്കുന്നത്

അത്യാവശ്യം സൗകര്യം വേണം അല്ലേ ആ നിലവിൽ നമ്മൾ എൻ്റെ കയ്യിലിപ്പം അങ്ങനെ വലിയ പ്ലോട്ടുകളൊന്നും കയ്യിലില്ല ഞാനൊന്നന്വേഷിച്ചു നോക്കട്ടെ ഞാൻ ഉടനെ പറയാം നിങ്ങൾക്ക് പിന്നെ ഈ വൺണ്ടി വണ്ടി സൗകര്യമൊക്കെ ആവശ്യമുള്ള പ്ലോട്ടല്ലേ വീടുവെയ്ക്കാനല്ലേ ആ എത്ര എത്ര എത്രത്തോളം സ്ഥലം വേണ്ടിവരുമായിരിക്കും എത്രത്തോളം സ്ഥലം വേണ്ടിവരുമായിരിക്കും പത്ത് സെൻറ്റല്ലേ ആ സ്ഥലത്തിനൊരു രണ്ട് രണ്ട് ലക്ഷത്തിനകത്ത് സെൻറ്റിനകത്ത് സെൻറ്റിന് രണ്ട് ലക്ഷത്തിനകത്ത് നോക്കിയാൽ പോരേ ആ ഓക്കെ ഓക്കെ ആ ആ ആ ഒന്നരലക്ഷം ആ ആ ഓക്കെ ഓക്കെ ആ അതുതന്നെ ഓക്കെ ഓക്കെ ശരി ശരി എന്നാൽ ഇവിടെ എനിക്ക് പരിചയമുള്ളൊരു സ്ഥലമുണ്ട് പത്ത് പത്ത് സെന്റോ ഇരുപത് സെൻറ്റെങ്ങാണ്ടുണ്ട് എനിക്ക് തോന്നുന്നു അവർ പത്ത് സെൻറ്റായിട്ട് കൊടുക്കുമെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ അവർ രണ്ടു രണ്ട് ലക്ഷമാണ് പറഞ്ഞത് അതിൽ കുറയുമോയെന്ന് കുറയുമോയെന്ന് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് ഞാൻ ഉടനെ വിളിക്കാം ആ ആ ഓക്കെ ഓക്കെ ഞാൻ നോക്കാം ആ വീട് വീട് വീട് വെയ്ക്കാനല്ലായിരുന്നോ പ്ലോട്ട് ഓക്കെ ഓക്കെ ശരി ശരി ശരി അവിടെ അവിടെ അത്യാവശ്യം വണ്ടി സൗകര്യമൊക്കെ ഉള്ളതാണ് ആ ശരി ശരി വെള്ളം വെള്ളം വേണേൽ കിണറൊന്നുമില്ല കിണർ കിണർ നിങ്ങൾ തന്നെ നോക്കേണ്ടിവരും പക്ഷേ ജപ്പാൻ കുടിവെള്ളം പദ്ധതിയൊക്കെ ഉള്ളതാ

ഇല്ല അങ്ങനെ വലിയ വലിയ കുഴപ്പമോ കുഴപ്പം കുഴപ്പമുള്ള സ്ഥലമൊന്നുമല്ല ആവശ്യത്തിന് വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ് ഓക്കെ ഓക്കെ ശരി ഇല്ല മേഡം അധികം അധികം ആൾക്കാരൊന്നുമില്ല എന്നാലും അയൽപക്കം അയൽപക്കമൊക്കെ ഉണ്ട് ഓക്കെ ശരി ആ ശരി ശരി ശരി മേഡം ഞാൻ വിളിക്കാം ഓ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി